ഇപ്പോൾ നമ്മളെ പ്രാദേശികമായിട്ട് പാലക്കാട് ജില്ലയെക്കുറിച്ച് പറയുകയാണെങ്കിൽ നമുക്ക് പാലക്കാട് ജില്ലയിൽ ഇപ്പോൾ എം എൽ എ ഉണ്ട് അതുപോലെ പാലക്കാട് ജില്ല നമുക്ക് രണ്ട് താലൂക്ക് ആയിട്ട് വരും ആലത്തൂർ താലൂക്ക് അതുപോലെ മറ്റേത് തരൂർ മണ്ഡലം അങ്ങനെ രണ്ടു മൂന്നു താലൂക്കുകൾ ആയിട്ടാണ് വരുന്നത് അപ്പോൾ അതിൽ എം എൽ എമാർ രണ്ടാൾ വരും അതുപോലെ എം പിമാരെന്ന് പറയുമ്പോൾ പാലക്കാടു തന്നെ ഒരു എം പിയാണ് വരുന്നത് പിന്നെ നമുക്ക് നോക്കുകയാണെന്നു പറഞ്ഞു കഴിഞ്ഞാൽ പാലക്കാട് ഒരു മുൻസിപ്പാലിറ്റി ആണ് പിന്നെ നമ്മൾ നോക്കുകയാണെന്നു പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ അടിയിലേക്ക് നോക്കുമ്പോൾ ബ്ലോക്ക് പഞ്ചായത്തുകൾ പിന്നെ പഞ്ചായത്തുകൾ അതുപോലെ ജില്ലാ പഞ്ചായത്തുകൾ അങ്ങനെയാണ് നമ്മൾ പാലക്കാട് ജില്ലയിലെ ഒരു രാഷ്ട്രീയ തലങ്ങളെ നമുക്ക് പറയാൻ പറ്റുന്നത് അതിൽ ഇപ്പോൾ നമ്മുടെ എം എൽ എ നോക്കുകയാണെന്നു പറയുമ്പോൾ പാലക്കാട് ജില്ലയിൽ നമ്മുടെ ശ്രീകണ്ഡനാണ് എം എൽ എ ആയിട്ട് വരുന്നത് അതുപോലെ നമുക്ക് വേറെ ആലത്തൂരിൻ്റെ ആണ് രമ്യ ഹരിദാസ് വരുന്നത് രമ്യ ഹരിദാസ് ആണ് ഇപ്പോൾ നമ്മുടെ പാലക്കാടിലെ ആലത്തൂർ ഇത് വരുന്നത് തരൂർ മണ്ഡലത്തിൻ്റെ വേറെ ആണ് നമ്മളെ ആലത്തൂർ തന്നെയാണ് രമ്യാ ഹരിദാസ് നമ്മുടെ ഷാഫി പറമ്പിൽ എം എൽ എ ഉണ്ട് പാലക്കാട് ജില്ലയ്ക്ക് പിന്നെ ഇവരൊക്കെയാണ് മെയിൻ ആയിട്ട് ഇപ്പോൾ നമുക്ക് പാലക്കാട് ജില്ലയ്ക്ക് വേണ്ടി പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന ആൾക്കാർ അതിൽ കുറെ ആൾക്കാർ ഇപ്പോൾ നമ്മുടെ കെ എസ് ആർ ടി സി ബസ്സ് സ്റ്റാന്റ് കാര്യങ്ങളൊക്കെ കൊണ്ടുവന്നു അങ്ങനെ നമ്മുടെ വിവിധതരത്തിലുള്ള കാര്യങ്ങൾ നമുക്ക് അവർ നമ്മുടെ നാട്ടിൽ ഇപ്പോൾ പാലക്കാട് ജില്ലയ്ക്ക് വേണ്ടി ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്